ഹലോ സ്വിഗ്ഗി ഏജൻസി അല്ലേ ഞാൻ നല്ലൊരു ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി വിളിച്ചതാണേ അപ്പം നമുക്കിവിടെ നല്ലൊരു നല്ല മഴക്കാലമല്ലേ നല്ല മഴയൊക്കെ അല്ലേ പിന്നെ അപ്പം ഞങ്ങളിപ്പം ഞങ്ങളിപ്പം കോയമ്പത്തൂരിൽ നിന്ന് വന്നതേയുള്ളൂ വീട്ടില് ഫുഡ് കാര്യങ്ങൾ ഒന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ ആണ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഓർഡർ ചെയ്തത് ഫുഡ് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തത് അപ്പോൾ എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു അതായത് ഇത്രയും വലിയ അതായത് ഇത്രയും മഴ പെയ്യുന്ന സമയത്തും ആ ചേട്ടൻ കറക്റ്റ് ടൈമിൽ നമുക്കിവിടെ എത്തിച്ച് തന്നു അതായത് നമ്മള് ഒരു പിന്നെ പന്ത്രണ്ടര ആകുമ്പോൾ ആണ് ഞാൻ വിളിച്ചു പറഞ്ഞത് അതായത് ഫുഡ് കാര്യങ്ങളൊക്കെ ഉച്ചക്കത്തെ ഫുഡ് കാര്യങ്ങൾ പെട്ടെന്ന് കൊണ്ട് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഓ പെട്ടെന്ന് കൊണ്ട് തരാലോ എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ പത്രണ്ടേ മുക്കാല് പത്രണ്ടേ അമ്പത് ആയപ്പോഴേക്കും ഇവിടെ വീട്ടിലെത്തി ഇവിടെ കൊണ്ടുതന്നു അതേപോലെ നല്ല പാക്കിംഗ് കാര്യങ്ങളും ആയിരുന്നു അതായത് ഒരു ഫുഡ് പോലും അതായത് നമ്മൾ ചാറുകറി കറികളൊക്കെയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി പോലും തുളുമ്പി പോവാതെ നല്ല നീറ്റ് നീറ്റ് ആയിട്ടുള്ള പാക്കിംഗും അത് ഒരു തുള്ളി പോലും പുറത്തു പോകാണ്ട് അതായത് നമുക്ക് കാണുമ്പം തന്നെ ഭയങ്കര നീറ്റ് നീറ്റ് ആയിട്ട് തോന്നും അപ്പം അത്രയ്ക്കും വൃത്തിയായിട്ടാണ് നിങ്ങൾ കൊണ്ട് തന്നത് അപ്പോൾ അതിനൊരു താങ്ക്സ് പറയാൻ വേണ്ടി വിളിച്ചതാണേ ആ ഓക്കേ ഓക്കേ ഓക്കേ താങ്ക്യൂ